പുതിയ വൈദ്യുത ബന്ധം കിട്ടുന്നത് ഞങ്ങളെ പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിലുള്ള ഒരു ഇതിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോള് അവിടേക്കുള്ള ജലസേചനം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോള് പഞ്ചായത്തില് എഴുതി വൈദ്യുതിക്കു വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ അതായത് നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോള് അത് അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു സമയത്ത് കൃഷിയൊക്കെ ഇറക്കിയിട്ടുള്ളതും കാര്യങ്ങളും പിന്നെ നമ്മള് ഒരു ഗ്രാമ പ്രദേശമായത് കൊണ്ട്തന്നെ ഒരുപാട് പുഴകളും നീർച്ചാലുകളും തോടുകളും ഒക്കെയാണ് കൂടുതലായിട്ട് കൃഷിക്ക് വേണ്ടി നമ്മള് ആശ്രയിക്കുന്നെ ജലത്തിനായി നമ്മള് ആശ്രയിക്കുന്ന ഒരു മാർഗം കൂടുതലായിട്ടും നമ്മള് ചെയ്യുന്ന കൃഷി വാഴ കൃഷിയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതിൻ്റെ ഇടയിലൂടെ വെണ്ട കൃഷി വഴുതനങ്ങാ കൃഷി അതൊക്കെ നടക്കുന്നുണ്ട് അപ്പോള് ജലത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ടും പിന്നെ ചൂടിൻ്റെ വെയിലിൻ്റെ ചൂടിൻ്റെ ആഘാതം കൊണ്ടും കൃഷി ഒരു ആ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ഒരു നശിച്ച രീതിയിലാണ് ഇപ്പോള് ഉള്ളത് അതൊന്ന് നന്നായിട്ട് ചെയ്യണമെങ്കില് നന്നാക്കിക്കൊണ്ടുവരണമെങ്കില് നല്ല വിള കിട്ടണമെങ്കില് ജലം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോള് ഇനി പുതിയ രീതിയില് എങ്ങനെയാണെന്ന് വെച്ചാല് പുതിയ വൈദ്യുതി ബന്ധം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെ പോലുള്ള കർഷകര്